ഇപ്പം ജോലിക്ക് പുറത്ത് നാ ഒന്നുള്ള ഹോബീസ് ആണെങ്കിൽ ഇപ്പ നമ്മൾ ജോലി ചെയ്ത് ഭയങ്കര ടയേർഡ് ഒക്കെ ആയിട്ട് വന്നാലും നമ്മുടെ ഹോബീസ് ആയിരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സ് നൽകുന്നത് കാരണം നമുക്ക് ആ ആ ഒരു ഹോബി ചെയ്യുമ്പം നമുക്ക് ഇപ്പോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും നമ്മള് ചെയ്യുക ഈ ഹോബീസ് ആയത് ചെയ്യും എന്ന് പറയുമ്പം തന്നെ സിമ്പിൾ ഡ്രോയിങ് ആണെങ്കിൽ തന്നെ ഇപ്പം എല്ലാ ഇതും കഴിഞ്ഞു കഴിഞ്ഞ് നമ്മളെ മൈൻഡ് ഒന്ന് ക്ലീയറായി നമുക്ക് സന്തോഷം വരുന്ന ഓരോ കാര്യങ്ങള് വരക്കാൻ സോ അത് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു അത് നന്നാകുമ്പോൾ നമുക്ക് ഒരു മനസ്സിൽ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും കാരണം നമ്മുടെ അത്രയും ജോലി ചെയ്തുള്ള ആ പ്രയാസങ്ങളെല്ലാം മറക്കുന്നത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും കാരണം നമ്മൾ സ്ട്രെസ് ഭയങ്കര ക്ഷീണം ഒന്നും തോന്നൂല്ല ഭയങ്കര നമ്മൾ ഹാപ്പിയായിട്ടായിരിക്കും നമ്മളുടെ ഹോബീസ് ഒക്കെ ചെയ്യുക അപ്പ പാട്ടുപാടുന്നത് നമുക്ക് ചെലപ്പോ പാട്ടൊക്കെ കേക്കാം ഇപ്പം ഡ്രോയിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ പാ പാട്ട് ഒക്കെ വെച്ച് ഡ്രോയിങ് ചെയ്യുമ്പോളും ഭയങ്കര നമ്മളുടെ മൈൻഡ് ഭയങ്കര കൂൾ ആകും നമുക്ക് ഒരു ഒരു നമ്മൾ ചെയ്യുന്ന ജോലിനോട് നമുക്ക് ഒരു വെറുപ്പ് തോന്നൂല്ല ഭയങ്കര ഇഷ്ടത്തോടെയൊക്കെ ആയിരിക്കും നമ്മള് അത് ചെയ്യുക സോ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഓരോ ഓരോത്തർക്ക് കിട്ടുന്ന ഒരു കഴിവാണ് സോ ആ കഴിവ് ഭയങ്കരായിട്ട് ഡെവലപ്പ് ആക്കാനൊക്കെ സോ പറ്റും